മലയാളഭാഷ പറയുന്നത് പോലെ ഒരു മലയാളിക്ക് മറ്റ് ഭാഷയൊരിക്കലും പറയാൻ സാധിക്കയില്ല പറയാൻ പറ്റും അതൊരുപാട് നമ്മള് അതിനായിട്ട് അൽപ്പം ഐ ഇ എല് ടി എസ് പോലുള്ള ഭാഷകള് അതിൻ്റെ കോച്ചിങ്ങ് സെൻറ്ററിൽ പോയി പഠിച്ചെങ്കിൽ മാത്രമേ അത്രയും നമുക്ക് ഫ്ലുവൻറ്റായിട്ട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ അതേസമയം നമ്മുടെ മാതൃഭാഷ നമ്മള് ജനിച്ച കാലം മുതല് നമ്മുടെ അപ്പനും അമ്മയും അല്ലെങ്കില് അനിയനും ചേട്ടനും വല്യച്ചനും വല്യപ്പനുമെല്ലാം നമുക്ക് പറഞ്ഞ് തരുന്ന അല്ലെങ്കിലവരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടുന്നൊരു ഭാഷയാണ് മാതൃഭാഷ അതാണ് മലയാള ഭാഷ അപ്പോള് ഈ മാതൃ കേരളത്തില് ജനിച്ച എല്ലാവരുടെയും മാ മാതൃഭാഷ മലയാളം തന്നെയാണ് ആ ഒരു ഭാഷയ്ക്ക് മാതൃഭാഷ മാതൃഭാഷ തന്നേയായിട്ടേ ഉള്ളു ഒരിക്കലും മറ്റൊരു ഭാഷ അത്രയും മുന്നോട്ട് വരികയില്ല എങ്കിലും നമ്മൾ മറ്റു രാജ്യങ്ങളില് കേരളത്തിലുള്ള ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ ജീവിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്യണ്ടൊരവസരമുള്ളത് കൊണ്ട് നമ്മളെല്ലാ ഭാഷയും പഠിക്കാറുണ്ട് പക്ഷേ ഒരിക്കലും ആ ഭാഷകള് മലയാള ഭാഷയുമായിട്ട് താരതമ്യം ചെയ്താൽ നമ്മള്ക്ക് എപ്പോഴും മലയാളം തന്നെയായിരിക്കും മുന്നില് നില്ക്കുന്നത് നമ്മുടെ സ്വന്തം ഭാഷ തന്നെയായിരിക്കും മുന്നില് നില്ക്കുന്നത് പിന്നെ മറ്റൊരു രാജ്യത്ത് ചെന്നാൽ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ എല്ലാം ഇപ്പോള് മലയാളികളായിരിക്കും കൂടുതലും അതുകൊണ്ടുതന്നെ നമുക്ക് നമ്മുടെ ആൾക്കാരെ കാണുമ്പോള് ഒരു പ്രത്യേക സന്തോഷമാണവരോടാ മലയാള ഭാഷ സംസാരിക്കാൻ പ്രത്യേക സന്തോഷമാണ് അവര് അതിൻ്റെതായിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്നുള്ളൊരു സ്നേഹവും സന്തോഷവും ഒത്തൊരുമയും എവിടെ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും